ഫേക്ക് ന്യൂസ് എന്നു പറയുമ്പോള് കേട്ടിട്ടുണ്ട് കുറെ ഫേക്ക് ന്യൂസ് കേട്ടിട്ടുണ്ട് അഥവാ അതായത് ഇപ്പോൾ ഒരു ഫ് ഫിലിം ഇറങ്ങിയെന്ന് വെച്ചോ ആ ഫിലിം മ് കൊള്ളത്തില്ല എന്നും പറഞ്ഞ് ന്യൂസ് വരും അതും എല്ലാ ചാനലിലും ഒന്നും വരത്തില്ല ഒരു ഒരു മാധ്യമ ങ്ങളും ആ സിനിമ കൊള്ളത്തില്ലെന്ന് പറയും ചില ഇത് ചില ന്യൂസ് ഇതില് വരും ഇങ്ങനെ പലതരം ഇത് ന്യൂസ് ഉണ്ടല്ലോ അതില് ചിലതിൽ വരും അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു വരും അപ്പോൾ നമ് നമുക്ക് പിന്നെ നമ്മുടെ മനസിനെ ഇങ്ങനെ പിന്നോട്ട് മാറി കൊണ്ടിരിക്കും അത് കാണണം വേണ്ട വേണ്ട കൊള്ളത്തില്ലെന്ന് ന്യൂസിലൊക്കെ പറഞ്ഞതല്ലേ അത് അത്ര മോശമായത് കൊണ്ടായിരിക്കും ന്യൂസിലൊക്കെ പറഞ്ഞതാണെന്ന് നമ്മള് വിചാരിക്കും പക്ഷെ ഈ ന്യൂസ് പറയുന്നവര് ഈ ന്യൂസ് റീഡേഴ്സും ഇത് ഇതിന്റെ ഈ ക ഇത് എഴുതിയവരും ആരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവത്തില്ല അവര് വെറുതെ അവര് ഒരു വ്യൂവേഴ്സ് കൂടാന് വേണ്ടി ഓരോ ന്യൂസും ഇങ്ങനെ ഫേക് ആയിട്ടാണേലും ക്രിയേറ്റ് ചെയ്ത് ഇടുന്നതാണ് അത് എല്ലാവരും ഒന്നും വിശ്വസിക്കത്തില്ല എന്നാൽ ചിലവർ അതിനെ അങ്ങ് അന്ധമായി വിശ്വാസിക്കും എന്തുവാണിപ്പോൾ ആ ഫ് ഫിലിം കൊള്ളത്തില്ല എന്ന് പറയും നമ്മള് കാണാന് മടിക്കും പക്ഷെ ചിലവര് ആണേൽ അത് വിശ്വസിക്കാതെ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണേൽ പോയി കാണും ചില ഫ്രണ്ട്സ് അത് വിശ്വസിക്കാത്ത ഫ്രണ്ട്സ് ഒക്കെ അത് പോയി കാണും ആ കൊള്ളാമായിരുന്നു നല്ല ഫിലിമാണ് എന്നൊക്കെ പറയുമ്പം എന്നാൽ നമ്മള് എന്നാൽ പോയി കാണാം എന്ന് വിചാരിക്കും അപ്പോൾ അറിയാം നല്ല ഫിലീമാന്ന് ഇപ്പോൾ ഈ ന്യൂസില് പറഞ്ഞ കള്ളത്തരം പിന്നെ ഇപ്പോൾ ഓരോ ന്യൂസ് കാരും ഇപ്പോൾ ഒരു അവരുടെ ഓരോ പാര്ട്ടിക്കാരെ സപ്പോര്ട്ട് ചെയ്ത് ഇപ്പോൾ ഉണ്ട് അവരുടെ പാര്ട്ടീനെ സപ്പോര്ട്ട് ചെയ്തിരിക്കും ഓരോത്തരും അവരുടെ പാര്ട്ടിക്ക് എതിരായിട്ടുള്ള ന്യൂസ് വല്ലതും കിട്ടുവാണേൽ അതങ്ങോട്ട് സ്പ്രെഡ് ചെയ്തെടുക്കും മനസ്സിലായോ അതായത് ഓരോത്തര് ഒരു ഇപ്പം അങ്ങനെ എന്തുവാ ഏതു ന്യൂസ് ചാനലാണോ അഥവാ ഏതു പത്ര പത്രമാണ് ഏറ്റവും എന്തോ ചെയ്ത് ഫേക്ക് ന്യൂസ് ഇല്ലാത്ത ഒരു രീതിയില് പത്രങ്ങളും ന്യൂസും എല്ലാം ഒരു ഇതെന്ന് വന്നാൽ അങ്ങനെ പറയാന് നമുക്ക് കഴിയത്തില്ല കാരണം എല്ലാത്തിലും വ്യൂവേഴ്സ് കൂടാനും അവര്ക്ക് ഒരു ഇത് കൂടാന് വേണ്ടിയും ഒക്കെ അവര് ഒരു ഫേക്ക് ന്യൂസ് എടുത്തിടും അതിപ്പോൾ സ്പോര്ട്സിലാണേലും അഥവാ എന്തേലും റിയല് ലൈഫിലാണേലും നിരപരാധികളെ കുറ്റക്കാരാക്കും കുറ്റക്കാരാക്കി അവരെ ചിത്രികരിക്കും പിന്നീട് ആ കാ കേസ് തെളിഞ്ഞു കഴിയുമ്പോള് അവര് അത് പറഞ്ഞിട്ട് അതങ്ങ് നൈസ് ആയി ഉഴപ്പി വിടുകയാണ് അതിപ്പം മാധ്യമങ്ങളും കൂടെ അങ്ങ് സപ്പോര്ട്ട് ചെയ്യുകയും ചെയ്യും അതായത് ഇപ്പോൾ ഒരു തെറ്റ് ചെയ്യാത്ത ആള് തെറ്റ് ചെയ്തെന്നും പറഞ്ഞ് മാധ്യമങ്ങളങ്ങ് അടിച്ചു വിടുകയാണ് ഇപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് ഇല്ലേൽ തന്നെ അവര് തന്നെ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ന്യൂസ് ഉണ്ടാക്കി വിടുകയാണ് ഇപ്പോൾ എല്ലാ ദിവസവും കാണും പത്തഞ്ഞൂറ് ന്യൂസ് എല്ലാ ചാനലിലും കാണും